പതിനാറ് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് പത്തൊൻപത് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ഇരുപത്താറ് രണ്ട് രണ്ടായിരത്തി പതിനാല് ഇരുപത്തെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്